ആ ഇത് മൾട്ടി റസ്റ്റോറൻറ് അല്ലെ ആ ഓക്കേ ഞാൻ കുറച്ചു നേരം മുൻപ് നിങ്ങളെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നെ എനിക്ക് കുറച്ച് ഫുഡ് ഐറ്റംസ് ഓർഡർ ചെയ്യാൻ വേണ്ടിയായിരുന്നെ ഞാൻ വിളിച്ചത് ആ അതെ അതെ അതെ അത് തന്നെ ആ അപ്പോൾ നിങ്ങളോട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ നോട്ട് ചെയ്തില്ലായിരുന്നോ ആ ഓക്കേ ഓക്കേ ആ അത് തന്നെ അത് തന്നെ അതിൽ നിന്ന് നമുക്ക് നാന് ബട്ടർ നാന് അത് ഒഴിവാക്കുക എന്നിട്ട് ചപ്പാത്തി ആഡ് ചെയ്താൽ മതി പിന്നെ എനിക്ക് കുറച്ചു സോഫ്റ്റ് ഡ്രിങ്ക്സ് കൂടി അതിൻ്റെ കൂടെ വേണം ഇപ്പം ഒരു രണ്ട് ലിറ്ററിൻ്റെ മിറിൻ്റെയോ പെപ്സിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ക്യാൻ ഒരു രണ്ട് രണ്ട് ലിറ്ററിൻ്റെ ക്യാൻ അതില് ആഡ് ചെയ്യണം പിന്നെ ആ ഒക്കെ അതിൽ മിക്സ് വെജ് കറി ഒഴിവാക്കിയിട്ട് ഒരു ചില്ലി ചിക്കൻ ഡ്രൈ ആ ആഡ് ചെയ്തോളു ആ ഓക്കേ ഓക്കേ ആ അത്രയും ഐറ്റംസ് മതി നിങ്ങളത് ക്യാൻസൽ ചെയ്തിട്ട് ഈ ഐറ്റംസ് അതിനകത്ത് കൂട്ടിയിട്ട് കൊടുത്തു വിട്ടാൽ മതി ആയിക്കോട്ടെ ഓക്കേ എന്നാൽ